നമ്മള് കൃഷി എടുത്ത് മുന്നോട്ട് നടക്കുമ്പോള് ഇപ്പോള് വയൽകൃഷിയാണെങ്കില് ഇപ്പോള് നെല്ലാണെങ്കില് വെള്ളം വേണം അതുപോലെതന്നെ മഴ കൃത്യസമയത്ത് ലഭിക്കണം എങ്കില് മാത്രമേ വയലില് വെള്ളമുണ്ടാവുകയുള്ളൂ അങ്ങനെ വെച്ചുകഴിഞ്ഞാല് നമുക്കൊരു പ്രചോദനമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ കാലാവസ്ഥ ചതിക്കില്ലെന്നൊരു ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോള് ഇതാക്കുന്നത്

കാരണം എന്തുവന്നാലും എന്താണ് പറയുക മുന്നിട്ടിറങ്ങുന്ന ഒരു രീതിയാണ് കൃഷിക്കാർക്കുള്ളത് ഇപ്പം ഇപ്പം എന്തിനും വിള നശിച്ചാല് ഇപ്പം കുരങ്ങെല്ലാം വന്നിട്ട് നമ്മുടെ എന്താണ് പറയുക മണ്ണൊക്കെ മാന്തി നമ്മുടെ വിളയെല്ലാം കളഞ്ഞിട്ടുണ്ടെങ്കില് ഒന്നുമല്ലെങ്കില് നമ്മള് എന്താണ് പറയുക ഇത് കൊടുക്കും റിപ്പോർട്ട് കൊടുക്കും അത് അവര് വന്നുനോക്കും ഓഫീസര് വന്നുനോക്കും അങ്ങനെ നമുക്ക് ചെറിയൊരു തുക നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇതില് നോക്കാറ് എങ്കില്പ്പോലും എല്ലാം ഭാഗ്യപരീക്ഷണമാണെന്ന് വേണമെങ്കില് പറയാം വിളയൊക്കെ നശിച്ചുപോയി കഴിഞ്ഞാല് എന്താണ് പറയുക നമ്മള് ഇടയ്ക്ക് കുറച്ച് പൈസ പോയി എന്നാല് പോലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ലഭിക്കും കാരണം ഇപ്പം ഈ വാഴയൊക്കെ നട്ടിട്ട് കാറ്റെല്ലാമടിച്ച് വാഴ പോയിട്ടുണ്ടെങ്കില്പ്പോലും അതില്നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടും കാരണം നമ്മള് റിപ്പോർട്ട് എല്ലാം ചെയ്ത് നമ്മുടെ അവര് കുറച്ച് പൈസ നമുക്ക് തരും കാരണം എന്താണെന്നുവെച്ചു കഴിഞ്ഞാല് ഇത്രയും പൈസ മുടക്കി നമ്മള് ചെയ്ത കൃഷിയല്ലേ അപ്പോള് അങ്ങനെയുള്ള പ്രശ്നം പിന്നെ ആന ഇറങ്ങുന്നതുകൊണ്ടെല്ലാമുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് അതുപോലെത്തന്നെ നമ്മളിത് ഏറ്റെടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ജീവിക്കാനുള്ളൊരു ഉപായമാർഗ്ഗമാണ് കൃഷിയെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് റിസ്ക് എടുത്ത് ചെയ്യുന്നത് കാരണം റിസ്ക് എടുക്കുന്നവര്ക്കേ എന്താണ് പറയുക സക്സസ് ഉണ്ടാവുകയുള്ളൂവെന്നല്ലേ അപ്പോള് അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് കാലാവസ്ഥയൊക്കെ നോക്കി നമ്മള് കൃഷി ചെയ്യുന്നത്